വിദ്യാഭ്യാസമില്ലാത്ത ഒരു തലമുറയെ നമുക്ക് കാണാൻ കഴിയും കാരണം ഏതൊരു ഇതിനും നമുക്ക് വിദ്യാഭ്യാസം മസ്റ്റ് ആണ് ഇപ്പം ഏതൊരു ജോലിക്ക് ആണെങ്കിലും വിദ്യാഭ്യാസമില്ലാത്ത ഒരു ലോകം ലോകം നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല വിദ്യാഭ്യാസമില്ലെങ്കിൽ അവൻ അവൻ ആരുമല്ല വിദ്യാഭ്യാസത്തെ പറ്റി പറയുമ്പോൾ വിദ്യാഭ്യാസം ഇല്ലാതെ അവന് ഒരിക്കലും മുന്നോട്ട് പോവാൻ കഴിയില്ല നമ്മൾ ഈ ഒന്നാമത് സ്കൂൾ വിദ്യാഭ്യാസം ഒന്ന് മുതൽ പത്ത് വരെയും അത് കഴിഞ്ഞ് പ്ലസ് വൺ പ്ലസ് റ്റു ആ വിദ്യാഭ്യാസമില്ലാതെ ഒരു കാരണവശാലും അവന് മുന്നോട്ട് പോവാൻ കഴിയില്ല അത് നമുക്ക് മനസ്സിലാക്കാം ഒരു കാരണവശാലും അവന് മുന്നോട്ട് പോവാനോ അവന് മറ്റ് കാര്യങ്ങൾ ചെയ്യാനോ അവന് വേറെ ജോലിക്ക് ട്രൈ ചെയ്യാനോ വിദ്യാഭ്യാസമില്ലാതെ നടക്കില്ല വിദ്യാഭ്യാസം നമ്മളെ സമ്പ്രദായത്തെ സംസ്കാരങ്ങളെ ഭയങ്കരമായിട്ട് സ്വാധീനിക്കുന്നുണ്ട് സ്വാധീനിക്കുന്നുണ്ട് കാരണം ഇപ്പോൾ ഒരു വീട്ടിൽ ഇപ്പം വിദ്യാഭ്യാസമില്ലാതെ വിദ്യഭ്യാസമില്ലാത്ത ഒരുപാട് പേർക്കുണ്ട് അവരെ അവസ്ഥയൊക്കെ നമക്കറിയാവുന്നതാണ് വിദ്യാഭ്യാസമാണ് മെയ്ൻ പിന്നെ ബിസിനസ്സ് ചെയ്ത് ജീവിക്കുന്നവരുണ്ട് അത് അതുപോലെ ആവില്ലല്ലോ എല്ലാ കുട്ടികളും അപ്പം അതിനെപ്പറ്റി പറയുമ്പോൾ വിദ്യാഭ്യാസമില്ലാത്ത ഒരു തലമുറ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല വിദ്യാഭ്യാസം മസ്റ്റ് ആണ് വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ ഈ വിദ്യാഭ്യാസത്തെ ഇപ്പം നമുക്ക് ഇപ്പം നല്ല മാർക്കിലല്ല വിദ്യാഭ്യാസം ഇരിക്കുന്നത് നമുക്ക് ഒരാളെ അടുത്ത് പെരുമാറാനുള്ളൊരു ശൈലി നമുക്ക് ഒരാളുടെ അടുത്ത് എങ്ങനെ ബിഹേവ് ചെയ്യണം എന്ന് നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ അവരെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടതാണ് ഒരു വിദ്യാഭ്യാസം കൊണ്ട് എല്ലാരും ഈ നമ്മുടെ ഒരു യോചിക്കുന്നു നമുക്ക് മറ്റുള്ളവരോട് പെരുമാറാനുള്ള ഒരു ഇത് നമ്മൾ വീട്ടിൽ നിൽക്കുന്നതിനേക്കാൾ കൂടുതൽ സ്കൂളിലാണ് നിൽക്കുന്നത് നമുക്ക് ഉറപ്പായും അറിയാം നമ്മൾ വീട്ടിൽ അച്ഛനമ്മമാരുമായിട്ട് പെരുമാറുന്നതിനേക്കാൾ കൂടുതൽ നമ്മൾ ഈ ഒന്ന് മുതൽ പത്ത് വരെയുള്ള സമയത്ത് നമ്മുടെ വളർച്ചയാവുന്ന സമയമാണ് ആ സമയത്തെല്ലാം നമ്മൾ നിൽക്കുന്നത് ടീച്ചർമാരുടെ അടുത്തും അവർ ഫ്രെണ്ട്സിൻ്റെ അടുത്തും അപ്പം ഫ്രെണ്ട്സ് ഒരു വലിയ ഘടകമാണ് ഇതിന് നമ്മളെ സഹായിക്കുന്ന ഫ്രെണ്ട്സ് ഒരു വലിയ ഘടകമാണ് ഫ്രെണ്ട്സ് ഇല്ലാതെ നമുക്ക് ഇത് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഫ്രണ്ട്സ്സ് നമ്മളെ ഒരുപാട് കാര്യങ്ങൾ സ്വാധീനിക്കുന്നുണ്ട് ഫ്രണ്ട്സ്സ് അതുപോലെ ടീച്ചേഴ്സ്സ് പാരൻറ്റ്സ് അതേപോലെ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസ യോഗ്യത ഇല്ലാത്ത ഒരാൾക്കും ഇവിടെ നിലനിൽക്കാൻ പറ്റില്ല കേരളത്തിൽ പറ്റില്ല കേരളത്തിലെന്നല്ല ലോകത്തിൽ എവിടെയും പറ്റില്ല വിദ്യാഭ്യാസം ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ വേണ്ട ഒരു മസ്റ്റ് ആയിട്ടുള്ള കാര്യമാണ് വിദ്യാഭ്യാസമില്ലാതെ പറ്റില്ല അപ്പം നമ്മൾ മാക്സിമം വിദ്യാഭ്യാസം മുന്നോട്ട് വയ്ക്കാൻ നമ്മൾ ശ്രമിക്കണം മാക്സിമം വിദ്യാഭ്യാസം മുന്നോട്ട് വരണം അപ്പം നമ്മൾ അത് ട്രൈ ചെയ്യണം അപ്പം വിദ്യാഭ്യാസം നമ്മളെ നമ്മുടെ ഒരു കുട്ടികളിലായാലും വളർന്ന് വരുന്ന കുട്ടികളിലായാലും വിദ്യാഭ്യാസത്തെ കൂടുതൽ അവരിലേക്ക് എത്തിക്കാൻ നമ്മൾ അവരെ നമ്മളെക്കൊണ്ട് പറ്റാവുന്ന രീതിയിൽ അവരെ പ്രെവോക്ക് ചെയ്യണം അവർ അവർ പഠിക്കണം പഠിച്ചാലേ ഇപ്പം നമുക്ക് ജീവിക്കാൻ പറ്റൂ അപ്പം അതാണ് അവസ്ഥ അപ്പം ഒരു വിഷയത്തിൽ തോറ്റാലോ ജയിച്ചാലോ അങ്ങനെ അല്ല നമ്മൾ വിദ്യാഭ്യാസം വേണം വിദ്യാഭ്യാസം ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല അപ്പം നമ്മളെ ജീവിതത്തിൽ ഏറ്റവും വേണ്ട ഒരു കാര്യമാണ് വിദ്യാഭ്യാസം മസ്റ്റ് ആയിട്ടും വേണം അപ്പം വിദ്യാഭ്യാസത്തിന് മാക്സിമം ഇമ്പോർട്ടൻറ്റ് കൊടുക്കുക കളിയും ചിരിയും എല്ലാം വേണം പക്ഷെ അതിന് അതിന് പുറമെ വിദ്യാഭ്യാസം അത് മാക്സി ഇമ്പ്രൂവ് ചെയ്യണം വിദ്യാഭ്യാസം നമ്മളെ കേരളത്തെ സ്വാധീനിക്കുന്നു പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ സ്വാധീനിക്കുന്നു കാരണം എന്ന് വെച്ചാൽ വിദ്യാഭ്യാസം ഈ ഏത് സലത്ത് പോയാലും വിദ്യാഭ്യാസം വേണം ഇപ്പം നമുക്ക് ഒരാളുടെ അടുത്ത് പെരുമാറാൻ നമ്മൾ പഠിക്കുന്നത് സ്കൂളിൽനിന്നാണ് അത് വിദ്യാഭ്യാസമില്ലാതെ ഒരിക്കലും പറ്റില്ല അപ്പോൾ വിദ്യാഭ്യാസം മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആണ് അപ്പോൾ ഉറപ്പായും വിദ്യാഭ്യാസം വേണം അതിന് മോർ കൂടുതൽ ഇമ്പോർട്ടൻറ്റ് കൊടുക്കുക